പാത്രങ്ങൾ സോപ്പ് ഉപയോഗിച്ചും കഴുകാറുണ്ട് ഇപ്പോൾ ചായ വെച്ച പാത്രം ഒക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ഉരച്ചു കഴുകേണ്ടി വരും ആ സോപ്പ് ഒക്കെ ഇട്ട് ഇപ്പോൾ ചകിരി അല്ലെങ്കിൽ സ്റ്റീൽ ചകിരിയോ അല്ലെങ്കിൽ തേങ്ങയുടെ ചകിരി ഒക്കെ എടുത്തിട്ടാണ് ഉരച്ചു കഴുകാറ് നമ്മളിപ്പോൾ സോപ്പ് ഇട്ടിട്ട് ഉരച്ച് വൃത്തിയാക്കി കഴുകും എന്നിട്ട് പിന്നെ നല്ല വെള്ളം കൊണ്ട് ഒന്നുകൂടി കഴുകും അങ്ങനെയാണ് നമ്മൾ കഴുകാറ് അതിപ്പോൾ എണ്ണമയമുള്ള ഏതെങ്കിലും കൂട്ടാനോ കറിയൊക്കെ വെച്ച പാത്രങ്ങൾ ആണെങ്കിൽ അതിൽ ഒരുപാട് എണ്ണ മെഴുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ വെള്ളമൊഴിച്ച് ആ എണ്ണ കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അതില് സോപ്പ് സോപ്പിട്ട് അതൊന്നു ഉരയ്ക്കും അല്ലെങ്കിൽ ചകി മറ്റേ ചാരം ചാരം സോപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായി ഉരച്ച് വൃത്തിയായി എടുത്തു പറഞ്ഞാൽ കഴുകാൻ പറ്റും അല്ലെങ്കിൽ ഈ സോഡാപ്പൊടി അങ്ങനെ അത് കടയിൽ മേടിക്കാൻ കിട്ടും ഇത് കഴുകാൻ വേണ്ടിയിട്ടുള്ള അതിട്ടിട്ടും നമുക്ക് കഴുകാൻ പറ്റും ഉരച്ചു വൃത്തിയായിട്ട് കഴുകാം എന്നിട്ട് നല്ല വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി കഴുകിയെടുത്ത് പറഞ്ഞാൽ പാത്രം പുതിയത് പോലെ നല്ല വൃത്തിയുള്ളതും തിളക്കമാർന്ന പാത്രമായിരിക്കും